ഇപ്പോൾ തോട്ടക്കൃഷിയിൽ നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം പലരീതിയിലുള്ള വണ്ടുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ഇതിൽ ഇരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പടവലം ഒക്കെയാണെങ്കിൽ മെയിൻ ആയിട്ട് ഓരോ വണ്ടു വന്ന് കയറുക പുഴു വന്ന് കയറുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം അതിന് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുകളിൽക്കൂടി കവർ ഇട്ടു കൊടുക്കുക അപ്പം കവറിൽക്കൂടി നമ്മൾ എന്തായാലും ഈ കൃമികളൊന്നും കയറില്ല കാരണം കവറെന്നു പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്ക് കവർ ആണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ഇടുന്നത് അപ്പോൾ അത് ഇട്ടുകൊടുത്ത് കയിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിലുള്ളൊരു പടവലവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇപ്പോൾ വണ്ടുകൾ ആണെങ്കിലും വന്ന് അതു തുളയ്ക്കുകയോ അത് കേടാക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിപ്പോൾ ചീരക്കൃഷി അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനു പുഴുവിൻ്റെ ഭയങ്കര ശല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ അതിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുകയില കഷായം പോലത്തെ ഒരു വെള്ളത്തിലിട്ട് അടിച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്തുകൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പുഴുവും കാര്യങ്ങളൊക്കെ നശിച്ചു പോയ്ക്കോളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്തു വരുന്നത്